മാധ്യമങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പഴയ മാധ്യമങ്ങൾ എന്നു പറയുമ്പം പത്രം റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അത് പുതുക്കി പിന്നെ ഫോണും വാട്ട്സാപ്പും അങ്ങനെ പുതിയ പുതിയ ഫേസ്ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യം പഴയ മാധ്യമങ്ങൾ ആണെങ്കിൽ നമ്മൾക്ക് വിശ്വസനീയമായ കാര്യങ്ങൾ ആയിരുന്നു നമുക്ക് അത് നമ്മൾക്ക് നമ്മൾക്ക് ഉറച്ച് അത് വിശ്വസിക്കാമായിരുന്നു ഇപ്പോൾ എല്ലാം വളച്ചൊടിച്ച വാർത്തകളാണ് ഇപ്പോൾ പുതിയ മാധ്യമങ്ങളിൽ ഇറങ്ങുന്നത് അത് അത് നമ്മളെ അത് നമ്മളെ തന്നെ തിരിക്കുന്ന കണക്കിലുള്ള പോസ്റ്റുകളും ഇപ്പോൾ എഴുതുന്നത് പത്തു മിനിറ്റ് കഴിയുമ്പം മാറ്റി എഴുതുന്നതും വാട്സാപ്പിൽ ഒന്ന് വരും ഫേസ്ബുക്കിൽ ഒന്നു വരും എല്ലാം വളച്ചൊടിച്ച് വച്ചിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ അല്ല സത്യസന്ധമായ രീതിയിലാണ് പഴയ വാർത്തകൾ അതായത് റേഡിയോയിൽ കൂടി വരുന്നത് ഇപ്പോഴും ആ റേഡിയോയിൽ ഇന്നും ഉള്ളകാര്യങ്ങൾ ഇന്നും റേഡിയോ വീട്ടിൽ ഇട്ട് കേൾക്കുന്നുണ്ട് അത് അത് അതു തന്നെയാണ് ഇപ്പോഴത്തെ വാട്സാപ്പിനെക്കാട്ടിലും ഫേസ്ബുക്കിനെക്കാട്ടിലും നമുക്ക് ഉപകരിക്കുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് ആണ് വീട്ടിൽ റേഡിയോ മാംഗോ എന്നു പറഞ്ഞ ഒരു പരുപാടിയുണ്ട് പാട്ടുകളാണെങ്കിലും അതിനകത്ത് എല്ലാം നടക്കുന്ന കാര്യങ്ങൾ ആ സ്പോട്ടിൽ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അതൊക്കെ വിശ്വസനീയമായ വാർത്തകളാണ് വാട്സാപ്പിൽ വരുന്നതെല്ലാം വളച്ചൊടിച്ച് മറിച്ച് തിരിച്ച് വരുന്ന വാർത്തകളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുള്ള ഫേസ്ബുക്കുകളിൽ എല്ലാമുള്ള പോസ്റ്റുകളും എല്ലാം ആ റേഡിയോ റേഡിയോയിൽ കൂടിയുള്ള നമ്മൾ എല്ലാവരും കേൾക്കുന്നത് കേട്ട നമ്മളുടെ നമ്മുടെ ജോലികളും നടക്കും നമുക്ക് അത് കേൾക്കാനും പറ്റും എല്ലാം പറ്റും ഞാൻ ഇപ്പോഴും ആ പഴയ മാധ്യമങ്ങളാണ് ഇന്നും വിശ്വസനീയമായിട്ട് ഉള്ളതെന്നും ഞാൻ പറയുന്നു